ഹലോ സാർ ഇത് ലാന്റ് ലൈൻ കസ്റ്റമർ കെയറല്ലേ ഇവിടെ ഞാനാണെങ്കിൽ എന്റെ ബില്ലാണെങ്കിൽ അടച്ചിരുന്നു ഇപ്രാവശ്യം അത് ഞാനാണെങ്കിൽ ബില്ല് ചെയ്തിട്ട് എനിക്കതിന്റെ പണം അടച്ചു പക്ഷേ അതിന്റെ സ്വീകരണ മെയിലും ഒന്നും എനിക്ക് വന്നിട്ടില്ല അത് എന്റെ ഈ നമ്പറിലേക്ക് അതിന്റെ ഡീറ്റെയില് വന്നെങ്കിൽ ഒരു ഉപകാരപ്പെട്ടേനെ ഞാൻ കഴിഞ്ഞ പ്രാവിശ്യം ഇതുപോലൊക്കെ അയച്ചിട്ട് എനിക്കതിന്റെ ഡീറ്റെയിൽസൊന്നും വന്നിട്ടില്ലായിരുന്നു അതിന് നമ്മൾ പ്രത്യേകം വല്ല അപേക്ഷ നൽകേണമോ അതോ ഇനി നമ്മുടെ പുതിയ നമ്പറെങ്ങാനും ആഡ് ചെയ്തു കൊടുക്കണോ അതിനേക്കുറിച്ചൊന്ന് പറയാമോ ഓൺലൈനായി പേയ്മെന്റ് ചെയ്തതുകൊണ്ട് അതിന്റെ ഒരു റെസീപ്റ്റും എനിക്ക് കിട്ടിയിട്ടില്ല അതൊന്ന് അതിന്റെ ഡീറ്റെയിൽ എനിക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു